ഇപ്പോൾ കേരളത്തിൽ പൊതുവെ സ്ത്രീകളുടെ പങ്കില് ഒരുപാട് വ്യത്യാസങ്ങള് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പണ്ടെന്നൊക്കെ സ്ത്രീകൾ പൊതുവെ വീട്ടില് അങ്ങനെ ഒതുങ്ങി കൂടി നടന്നോണ്ടിരുന്ന ഒരു ഇതാണ് പ്രകൃതിയാണ് കാരണം കൂടുതൽ എന്താ പറയുക സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരുന്ന ഒരു കാലമായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പിന്നേ എന്താ പറയുക സ്ത്രീകൾക്ക് വലിയ അവകാശങ്ങൾ ഫ്രീഡം അങ്ങനെയൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാർക്കും തുല്യപങ്കാണ് സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എന്താ പറയുക ഇക്വാളിറ്റി അതായത് ഫ്രീഡം എല്ലാ കാര്യത്തിനും ഇക്വാലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട്തന്നെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടി ഇപ്പോൾ എന്തിന് മ മന്ത്രിസഭയിൽ വരെ സ്ത്രീകൾക്ക് അവസരമുണ്ട് അതുപോലെ എന്താ പറയുക ഇപ്പോൾ ഉയർന്ന് വന്നോണ്ടിരിക്കുന്ന എന്താ പറയുക സർക്കാർ അതായത് കേന്ദ്രസർക്കാർ മുതല് സ്ത്രീകൾക്ക് നല്ലൊരു അവസരം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് എന്ത് കൊണ്ടും പണ്ടും ഇന്നും വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു പങ്ക് കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് എല്ലാ ഇടത്തും തുല്യ പരിഗണനയൊക്കെ ലഭിക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്